ഇപ്പോൾ നമ്മുടെ അടുത്തൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വരുന്ന ആരാധനാലയങ്ങള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എനിക്കിപ്പോൾ ഇവിടെ അടുത്ത് വരുന്നത് ഹനുമാൻ കോവിലാണ് ഹനുമാൻ കോവിലെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്കെല്ലാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹനുമാൻ്റെ പല രീതീലുള്ള കോവിലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഹനുമാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നിത്യ ബ്രഹ്മചാരിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതായത് രാമൻ്റെ അതായത് സേവകൻ അങ്ങനൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പം അത് ഞാന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് നമ്മള് എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് പിന്നെ ഒരു ദേവിയുടെ അമ്പലവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് ഈ രണ്ട് മൂ ഒരു അമ്പലവും കൂടെ ഉണ്ട് ഇപ്പം ശിവൻ്റ അമ്പലം ഉണ്ട് അപ്പം അത് മൂന്നുവാണ് ഞാൻ കൂടുതലായിട്ട് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം അതില് മൂന്നില് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അപ്പം അവരുടെ ആചാരങ്ങൾ എന്നൊക്കെ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് നമക്കിപ്പം അതായത് ഇപ്പം ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഷർട്ടൂരിട്ടൊക്കെ കേറണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ഓരോ പ്രദക്ഷണം ഒക്കെ വെക്കുന്നതിന് ഓരോ അതായത് ഓരോ ചിട്ടവട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് ശിവൻ്റെ അമ്പല അമ്പലത്തിൽ ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെ പ്രദക്ഷണം വെക്കണന്നൊക്കെ അവര് പറഞ്ഞു തരും അപ്പോൾ അവരൊക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു അവരുടേതായിട്ടുള്ള ഒരാരാ മറ്റേ ആചാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാറുണ്ട് നമ്മള് ഈ മൂന്നമ്പലത്തിലാണ് മെയിനായിട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം